എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വളരെ ഇഷ്ടമാണ് ഞാൻ അത് ആ കുക്കിംഗ് ഒരു പിന്നെ അതൊരു കലയായിട്ട് കൊണ്ടു പോകുന്നു അതിന് അതൊരു വ്യവസായമായിട്ട് തുടങ്ങണമെന്ന് ഞാൻ പല വട്ടവും ചിന്തിച്ചിട്ടുണ്ട് അത് എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ട് ആണ് അതുപോലെ തന്നെ അവർക്ക് അത് എന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ കുറച്ചു നാൾ ഈ കുറച്ച് ഉണ്ണിയപ്പം ചിപ്സ് അച്ചാറുകൾ ഇതുപോലുള്ള സംരംഭങ്ങൾ കുറച്ചു ഉണ്ടായിരുന്നു പിന്നെ അത് ഈ എണ്ണയുടെയും എല്ലാത്തിൻ്റെയും വില കൂടിയപ്പോഴത്തേക്ക് എനിക്ക് നഷ്ടമായിട്ട് തോന്നി ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് ഞങ്ങൾ നമ്മൾ അരിമാവ് അരി പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ട് അതിനെ പൊടിച്ച് അതിൽ പൊടിച്ച് ആ മാവിൽ ശർക്കര പാനി ഒഴിച്ച് നെയ്യും പഴവും കൂടി വിരവി തേങ്ങ അരിഞ്ഞിട്ട് അത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോളുള്ള ടേസ്റ്റ് നല്ല മനോഹരമായ അടിപൊളി ടേസ്റ്റ് ആണ് അത് അതുപോലെ തന്നെയാണ് ചിപ്സ് ചിപ്സ് നമ്മൾ ഈ ആ കായ അതിനെ ഞൊരി ഞൊരായിട്ട് അരിഞ്ഞ് നല്ല വെളിച്ചെണ്ണയിൽ നല്ല പൊരിച്ചെടുക്കുമ്പോളുള്ള മണം അത് കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ് എൻ്റെ കുട്ടികൾക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചാറുകൾ അച്ചാറുകളും എല്ലാ അച്ചാറുകളും ഫിഷ് ഫിഷ് ഐറ്റമായിരുന്നാലും പിന്നെ മാങ്ങ നാരങ്ങ അതുപോലുള്ള അച്ചാറുകളും ഞാൻ ഇടുമായിരുന്നു ഇപ്പം സാമ്പത്തികം ആയിട്ട് അതിൻ്റെ ഈ ഈ എണ്ണയുടെയും എല്ലാം വിലക്കയറ്റം കാരണം ഞാനത് ആ സംരംഭം സ്റ്റോപ്പ് ചെയ്തു വച്ചിരിക്കുകയാണ്